മീൻ പിടിക്കാൻ പോയാല് മീന് ഇഷ്ടംപോലെ കിട്ടിവാണെങ്കില് നമുക്ക് വളരെ സന്തോഷായിരിക്കും അതുപോലെ മീൻ കിട്ടീല്ലെങ്കില് വളരെ സങ്കടത്തിലായിരിക്കും പിന്നെ പിന്നെന്ന് പറഞ്ഞാല് പിന്നെ മീൻ ഇഷ്ടംപോലെ കിട്ടിക്കഴിഞ്ഞാല് കരയ്ക്ക് വന്ന് കഴിഞ്ഞാല് ഭയങ്കര സന്തോഷത്തിൻ്റെ മുദ്രാവാക്യങ്ങളും പാട്ടുകളും എല്ലാം പാടി സന്തോഷിക്കാറുണ്ട് എല്ലാ വീടുകളിലും നല്ല ഉത്സവം പോലെയാണ് മീൻ കിട്ടിയാൽ ചില ദിവസങ്ങളിൽ പോയാല് മീനൊന്നും ഉണ്ടാവില്ല എത്രയോ ദിവസങ്ങള് കഴിഞ്ഞിട്ടാണ് കടലിൽ നിന്ന് അവര് വരുക ബോട്ടുമായിട്ട് പോയിക്കഴിഞ്ഞാല് എത്രയോ കാലം കഴിഞ്ഞിട്ടൊക്കെയാണ് അവര് വരുക ഒരു മാസം രണ്ട് മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നതെന്നാണ് പറയുന്നത് നമുക്കറിയില്ല പിന്നെ അപ്പൊൾ ഇത് പിടിച്ച് വരുവാണെങ്കില് മീനും കൂടി കിട്ടുവാനെങ്കില് ഭയങ്കര സന്തോഷായിരിക്കുവല്ലോ മീനില്ലാണ്ട് വന്നാല് അത് അതിനേക്കാളും വിഷമത്തിലായിരിക്കും അങ്ങനെ എല്ലാ എപ്പോഴും ഒരു പോലെ ആയിരിക്കുകയില്ല ചില സമയം കിട്ടും ചില സമയം ഒന്നും കിട്ടുകയില്ല അങ്ങനൊക്കെയാണ് മീൻപിടുത്തക്കാര് കഷ്ടപ്പെടുന്നത്